നെയ്ത്തും തുന്നലും എൻ്റെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ് അതു വഴി എനിക്ക് ആവശ്യത്തിനുള്ള പണം സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നു മാത്രമല്ല എൻ്റെ എൻറ്റെയെല്ലാം ആവശ്യങ്ങളും എനിക്ക് നേടാൻ കഴിഞ്ഞതും ഇതു വഴി തന്നെയാണ് അതുപോലെ നൂലുകളുമായി നിരന്തരം പണിയെടുക്കുന്നതിനാൽ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എപ്പോഴും നമ്മൾ ഒരേ ജോലികളിൽ ഒരേ ജോലിയിൽ ഏർപ്പെട് ഏർപ്പെടുമ്പോൾ നമ്മളുടെ ശരീരത്തിനെയും അതു പോലെ നമ്മളുടെ മനസ്സിനെയും അതിനുപരി നമ്മളുടെ കണ്ണിനെയും അത് നന്നായിട്ടു ബാധിക്കുകയും അത് നമ്മളുടെ തലയിൽ അത് നല്ല സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നു അതു കൊണ്ടു തന്നെ ഇത് ഗുണം എന്നതിനുപരി ദോഷവും നമുക്ക് നൽകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്